ഒരു പാത്രത്തിൽ വേണ്ടത്ര വെള്ളം എടുത്ത് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വയ്ക്കും വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് പാൽ ഒഴിക്കും വീണ്ടും തിളയ്ക്കുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇടും അത് നന്നായി ഇളക്കും ശേഷം അതിലേക്ക് പഞ്ചസാര ഇടും അത് വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ച് പാകം ആവുമ്പോൾ ഇറക്കി വയ്ക്കും

അരിച്ച് ഗ്ലാസിലേക്ക് ഒഴിക്കും ചായ തയ്യാറായി